ഞാൻ ഇന്ന് പറയാൻ പോണത് ഡേമ്ഡോക് ഹോണസ്റ്റ് സയൻസ് ഹൈ പേസൻറ്റ് ഗ്ലൈക്കോളിക് ആസിഡ് എന്ന പ്രോഡക്റ്റിനെ കുറിച്ചാണ് എൻ്റെ കഴുത്തിലും അണ്ടർ ആംസിലും കൈമുട്ടിലും ഒക്കെ നല്ല പിഗ്മെൻറ്റേഷനും ഡിസ്കളറേഷനും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയ ഒരു പ്രൊഡക്ടാണ് ഡേമ്ഡോക്കിൻ്റെ ഹോണസ്റ്റ് സയൻസ് ഹൈ പേസൻറ്റ് ഗ്ലൈക്കോളിക് ആസിഡ് ഇത് യൂസ് ചെയ്തതിന് ശേഷം ഹൻഡ്രഡ് പേസൻറ്റ് റിസൽറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ പിഗ്മെൻറ്റേഷനും ഡിസ്കളറേഷനും ഒക്കെ നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട് ഇത് അണ്ടർ ആം ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും സ്കിന്ന് ബ്രയ്റ്റൻ ചെയ്യാനും ഡിസ്കളറേഷൻ വേണ്ടിയും നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട് ഇത് എല്ലാ സ്കിൻ ടൈപിനും പറ്റുന്ന ഒരു പ്രോഡക്ടാണ് ഇതിൻ്റെ വില വന്നിട്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അത് എല്ലാവർക്കും അഫോർഡബിളായിട്ടുള്ള ഒരു പ്രൈസാണ് ഇത് ഓരോ സ്കിൻ ടൈപ് അൻസരിച്ചിരിക്കും ഇതിൻ്റെ റിസൽറ്റ് ചില സ്കിൻ ടൈപിന് ഒരു മാസം ഉപയോഗിച്ചാൽ മതി അത് നല്ല റിസൽറ്റ് തരും ചില സ്കിൻ ടൈപിന് രണ്ട് മാസം കണ്ടിന്യൂസായിട്ട് ഉപയോഗിക്കണം എന്നാലെ ഇത് റിസൽറ്റ് തരുള്ളു ഇത് ഉപയോഗിക്കേണ്ട എന്ന് പറയുമ്പോൾ ദിവസത്തിൽ രണ്ട് പ്രാവശ്യം എവിടെയെക്കയോ ഡിസ്കളറേഷനും പിഗ്മെൻറ്റേഷനുമുണ്ടോ അവിടെയൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് മാത്രമെ സ്പ്രേ ചെയ്യാവു എന്നിട്ട് അത് ഉണങ്ങുന്നതു വരെ കാത്തു നിൽക്കണം ഒരു ദിവസം രണ്ട് പ്രാവശ്യം ഇത് ചെയ്യണം ഇത് കണ്ടിന്യൂസായിട്ട് രണ്ട് മാസം മാക്സിമം രണ്ട് മാസം ചെയ്യുമ്പോൾ നമുക്ക് ഇത് റിസൽറ്റ് തരുന്നതായിരിക്കും ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡായിട്ടുള്ള ഒരു സാധനമാണ് അത്കൊണ്ട് തന്നെ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇത് സ്കിന്നിന് വേണ്ടി മാത്രമല്ല നമുക്ക് താരൻ മാറ്റാൻ വേണ്ടിയും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇതിന് അകത്തുള്ള ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ പ്യൂരിഫൈഡ് വാട്ടർ പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് പിന്നെ ഷുഗർക്കെയിനിൻ്റെ എക്സട്രാക്റ്റ് ഇതൊക്കെയാണ് ഇതൊക്കെ നല്ല റിസൽറ്റ് തരുന്നതാണ് സ്കിന്നിന് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് വേറൊരു പ്രസ്നവും വരുന്നതല്ല കാർണം ഇത് സെർട്ടിഫൈ ചെയ്തതും ടെസ്റ്റ് ചെയ്തതുമാണ് ഈ പ്രൊഡക്ടിൽ തന്നെ ക്യുആർ കോഡും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ കണ്ണുമായി ഡൈറക്റ്റ് കോണ്ടാക്ട് ആവാതിരിക്കാൻ ശ്രമിക്കണം ഇത് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ബൈ ഡേമ്ഡോക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നോക്കിയാൽ മതി ഇത് നിങ്ങൾ ഇപ്പോൾ വാങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടും എന്നാൽ ഇത് പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്ന ഒരു പ്രൊഡക്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് ഓർഡർ ചെയ്യണം